കായികത്തിനു വിജയവും പരാജയവും നമ്മുടെ ജീവിതത്തിൽ വിജയത്തേക്കാൾ കൂടുതൽ കായികത്തിൽ നമുക്ക് പരാജയമാണ് നമ്മളെ പാഠം പഠിപ്പിക്കുന്നത് നമ്മളെ മുൻപോട്ടു നീക്കാൻ സഹായിക്കുന്നതു കാരണം വിജയത്തിലൂടെ നമ്മളൊന്നും പഠിക്കുന്നില്ല വിജയത്തിലൂടെ നമ്മൾ ഒരു ഒരു ഒരു കാലത്തും വിജയം നമ്മളെ ഒന്നും പഠിപ്പിക്കുന്നില്ല പരാജയമാണ് വീണ്ടും മുൻപോട്ടു പോകാനും ഇതി കൂടുതൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നു പഠിപ്പിക്കുന്നത് വിജയം വിജയമല്ല പരാജയമാണ് അപ്പോൾ എന്തെങ്കിലും നമ്മളെ ഈ ജീവിതത്തിൽ വേ പഠിപ്പിക്കുന്നുണ്ടേ വെച്ചാൽ പരാജയം മാത്രമാണ് ഒരുത്തൻ്റെ പരാജയം ഒരിക്കലും അവൻ്റെ ജീവിതം ഇല്ലാതാക്കും അവനിനി ഒന്നിനും സാധിക്കുകയില്ല എന്നൊള്ളതല്ല അവൻ പരാജയപ്പെട്ടാലവനിനിയും ചെയ്യാൻ സാധിക്കും എന്ന് ഉള്ളൊരു തെളിവാണ് അവൻ്റെ അവൻ്റെ ആ ഒരു പരാജയം ഒരുത്തൻ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ആളുകൾ ഒടനെ അവനെ കുറ്റപ്പെടുത്തുന്നതിനു ശേഷമായിരിക്കും അവനൊന്നിനും കഴിയില്ല കഴിവില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ ഇല്ലാതാക്കുമ്പോൾ ആ ഒരു പറച്ചിലിൽ നിന്ന് ആ ഒരു ആ ഒരു മറ്റുള്ളവരുടെ ചിന്തയിൽ നിന്ന് അവനുയർന്ന് അവൻ ഈ ഒരു പരാജയത്തേക്കാൾ അവനു വലിയൊരു വിജയം ഇതിലൂടെ ഉണ്ടാക്കാൻ പറ്റും എന്ന് അവനെ കൊണ്ട് തോന്നിപ്പിക്കുന്നതാണ് അവൻ്റെ ഓരോ പരാജയങ്ങളും നമ്മളിപ്പം എല്ലാവരും കേട്ട പോലെ തന്നെ പരാജയം വിജയത്തിൻ്റെ മുന്നോടി തന്നെയാണ് നൂറു തവണ പരാജയപ്പെട്ടവൻ ഒരു തവണ വിജയിക്കും പക്ഷേ ആ വിജയം ഈ നൂറു തവണത്തെ പരാജയത്തേക്കാൾ ഏറ്റവും ഭംഗിയേറിയ ഒരു വിജയമായിരിക്കും അവൻ ആ നൂറു തവണ പരാജയപ്പെട്ടതിൻ്റെ എല്ലാ ക്ഷീണവും അവനാ ഒരു വിജയത്തിലൂടെ മേടിക്കും ഇപ്പം ഉദാഹരണത്തിനു പറയുകയാണെങ്കിൽ ഈ എല്ലാവർക്കും അറിയുന്നതു പോലെ ലയണൽ മെസ്സി തൻ്റെ കരിയർ തുടങ്ങിയ ആ വർഷം തന്നെ അവർ കരിയർ തുടങ്ങി കുറച്ചു വർഷങ്ങൾക്കു ശേഷം തന്നെ അതേ നാഷണൽ ടീമിലെത്തുന്നു അന്നത്തെ ആ വർഷത്തെ നാഷണൽ ടീമിലവർ വേൾഡ് കപ്പ് കളിക്കുന്നു ആ വേൾഡ് കപ്പ് അവർക്കു നഷ്ടമാകുന്നു അതിനു ശേഷം രണ്ടായിരത്തി പതിനാലില് വീണ്ടും അവർ വേൾഡ് കപ്പിനിറങ്ങുന്നു ഫൈനലിൽ ജർമ്മനിയോട് ഒരു ഗോളിന് ഒരു വെറും ഒരു ഗോളിനു പരാജയപ്പെടുന്നു അന്നു മെസ്സി ക്യാപ്റ്റനായിരുന്നപ്പോൾ മെസ്സി അനുഭവിച്ച പ്രഷറും അദ്ദേഹത്തിന് തൻ്റെ സ്വന്തം ജനങ്ങൾ അർജൻറ്റിനയുടെ സ്വന്തം ജനങ്ങൾ കൊടുത്തൊരു പ്രഷറും അല്ലേ കൊടുത്തൊരു കളിയാക്കലും ഇന്നു വരെ ഒരു സ്പോർട്സിലെ ഒരു വ്യക്തിക്കും കിട്ടാത്തത്ര ഒരു പ്രഷറാണ് അന്നദ്ദേഹത്തിനു കിട്ടിയത് അതിന് ശേഷം അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ വേൾഡ് കപ്പിനിറങ്ങുന്നു സെമി ഫൈനലിൽ ക്ഷമിക്കണം ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസുമായിട്ട് തോറ്റു പോകുന്നു അന്ന് അവരെ തള്ളിപ്പറഞ്ഞ സ്വന്തം ജനങ്ങൾ തന്നെയാണ് ഈ അർജൻറ്റിനയിലും മെസ്സി ഫാനായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു അദ്ദേഹത്തിന് ഈ രാജ്യത്തിനു വേണ്ടി ഒന്നും നേടാൻ സാധിക്കില്ല അദ്ദേഹം വെറുമൊരു ഫ്രോഡാണ് അദ്ദേഹം ക്ലബ്ബിനു വേണ്ടി മാത്രം കളിക്കുന്ന ആളാണ് പൈസക്കു വേണ്ടി മാത്രം കളിക്കുന്ന ആളാണ് എന്നു പറഞ്ഞ് പറഞ്ഞ് അദ്ദേഹത്തെ ഒരു ഫ്രോഡായിട്ടു മുദ്രകുത്തി അദ്ദേഹത്തെ പിന്നെ അത്ര താഴ്ന്ന് അത്ര പരാജയത്തിലേക്ക് കൂപ്പ് കുത്തിയ അദ്ദേഹം അടുത്ത വേൾഡ് കപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വേൾഡ് കപ്പിൽ അദ്ദേഹം തൻ്റെ സുവർണ്ണ കിരീടം വേൾഡ് കപ്പ് നേടുകയാണ് അതൊരിക്കലും എന്നാൽ തനിക്ക് വിചാരിക്കാമായിരുന്നു തന്നെ രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തിനു ഫൈനലിൽ അദ്ദേഹം തോറ്റു പോയി പതിനെട്ടിൽ ക്വാർട്ടർ ഫൈനലിൽ തോറ്റു പോയി ഈ ഇനി ഇത് നിർത്താം അല്ലേ എനിക്ക് ഇനി നേടാൻ സാധിക്കില്ല എന്നൊരു വിചാരത്തിലദ്ദേഹം ഇരുന്നിരുന്നെങ്കിൽ ഇന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സ ക്ഷമിക്കണം ഇരുപത്തി രണ്ടിൽ അദ്ദേഹം അർജൻറ്റിനക്കു വേണ്ടി കപ്പുയർത്തത്തില്ലായിരുന്നു മെസ്സി എന്നൊരാൾ ആ ഒരു തോൽവിയോടെ പോയിരുന്നെങ്കിൽ മെസ്സി എന്നൊരാൾ ഇന്ന് ചരിത്രത്തിലൊന്നും കേറ കയറുകയില്ലായിരുന്നു അതിനു മുൻപേ തന്നെ അദ്ദേഹം രാജ്യത്തിനു വേണ്ടി ഒന്നും നേടില്ലയെന്നു പറഞ്ഞ ആൾക്കാരവർൻ്റെ തന്നെ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോപ്പ അമേരിക്ക അടിക്കുക ഉണ്ടായി അങ്ങനെ ഈ അ ആ ഒരു രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ താനൊന്നും നേടാത്ത താൻ വെറും ചുരുക്കം ചുരുക്കം നാലു വർഷം കൊണ്ട് ഇനി ഒന്നും നേടാനില്ലാത്ത പോലെയായി അതാണ് പരാജയം കൊണ്ട് ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം പരാജയത്തോടെ അവിടെ തീർന്നു എന്നല്ല പരാജയം ഓരോ പരാജയവും ഒരു വിജയത്തിനു വേണ്ടിയുള്ള തുടക്കമാണ് അങ്ങനെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്